ഒരു മലയാളി യഥാർത്ഥത്തിൽ മലയാളിയാകുന്നത് അയാളൊരു മലയാളത്തിൽ ഒരു അയാള് മലയാളത്തിൽ സംസാരിക്കുമ്പോഴും വായിക്കുമ്പോഴും എഴുതുമ്പോഴും മാതൃഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ലോകത്തിലേതൊരു രാജ്യത്തോ ഏതൊരു സ്ഥലത്തോ ചെന്നാലും അവിടെ ഉറപ്പായിട്ടും ഒരു മലയാളി കാണും മലയാള ഭാഷയുടെ ഒരു ഒരു മലയാള ഭാഷയുടെ മാത്രമല്ല മലയാളികളുടെ തന്നെ ഒരു പ്രത്യേകതയാണത് മലയാള ഭാഷ എൻ്റെ ജീവിതത്തെ എൻ്റെ വ്യക്തിത്വത്തെയും എൻ്റെ സംസ്കാരത്തെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എനിക്കു മലയാളംകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് എവിടെ പോയാലുമൊരു മലയാളിയെ എങ്കിലും മലയാള ഭാഷ കൊണ്ടെനിക്കു കണ്ടുപിടിക്കാൻ പറ്റും മലയാളിയാണെന്നുള്ളത് പിന്നെ സംസ്കാരം ആണെങ്കിലും ഒരുപാട് നമുക്ക് ഓണമുണ്ട് മലയാളികളുടെ ദേശീയ മഹോത്സവമാണ് ഓണം ഓണം ആഘോഷിക്കാം എത്ര എത്ര കേരളപ്പിറവി അങ്ങനെ തന്നെ മലയാളികൾക്കു മാത്രം അല്ലെങ്കില് മലയാള ഭാഷയ്ക്ക് മലയാളം സംസാരിക്കുന്നവർക്കു മാത്രമായിട്ട് അങ്ങനെ കുറേ സംസ്കാരങ്ങളുണ്ട് പിന്നെ മലയാളികള് ശ്രദ്ധിക്കുന്നതുപോലെ ഒരു കാര്യവും വേറൊരാളും ചിന്തിക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല എല്ലാ കാര്യങ്ങളിലും ഒരു അതിന്റേതായ കൃത്യനിഷ്ഠതകളുണ്ട്